അത് കോഴിക്കോട് ഇത് സൂപ്പർമാന് നടത്തുന്ന സൂപ്പർ മാർക്കറ്റ് നടത്തുന്നത് ആണെ അപ്പം നമ്മള് കുറച്ച് വെജിറ്റബിൾസ് ഹോൾസെയിൽ ആയിട്ട് കിട്ടുവോന്നു അറിയാൻ വേണ്ടി വിളിച്ച ആ എല്ലാം തന്നെ വേണ്ടി വരും കുറച്ച് ബൾക്ക് ആയിട്ട് തന്നെ വേണം

അത് എന്നത്തേക്കാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക ഈ വീക്ക് ലാസ്റ്റ് ആയി ഈ വീക്ക് ലാസ്റ്റെന്ന് പറയുമ്പം എപ്പം

അത് ഇപ്പോൾ ഞാൻ പിന്നെ അറിയിച്ചാൽ പോരെ വന്ന് തീരുമാനിച്ചിട്ട് അപ്പം റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരാം കുറച്ച് ഡിസ്കൗണ്ട് ഒക്ക തരാൻ പറ്റില്ലെ ആ ഓക്കെ ആ

ആ ചെയ്യാം ചെയ്യാം നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് ആയിട്ട് മതി എന്നാൽ ആ കോഴിക്കോട് കോഴിക്കോട്

ആ വൺ വീക്കിലേക്ക് ഉള്ള മതി പിന്നെ ഫ്രഷ് ആയിരിക്കണം അത്യാവശ്യം നല്ല ഫ്രഷ് ആയിരിക്കണം

ആ ഓക്കെ എന്നാൽ ആ ആ ആയിക്കോട്ടെ ആ എന്നാൽ മൊത്തം എല്ലാം കൂടിയൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയുവായിരുന്നെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് അല്ല ഇതായിട്ട് അഡ്വാൻസ് ആയിട്ട് അയച്ചോളാം എല്ലാം തന്നെ വേണം ഓൾമോസ്റ്റ്